കേരള ജനത മൃഗങ്ങളെ ഏറെ ബഹുമാനിക്കുന്ന ഒരു സമൂഹവാണ് മൃഗ സംരക്ഷണം നമ്മളുടെ ഭരണഘടനയിൽ തന്നെ വളരേ ആദരവോടുകൂടി പ്രസ്താവിച്ചിട്ടുള്ള മേഖലയാണ് നമ്മടേ കർഷകർ മൃഗങ്ങളെ പരിപാവനമായി അതിനെ പരിപ പരിരക്ഷിച്ച് വരുന്ന ഒരു പശ്ചാത്തലമാണ് ഇവിടെ കാണാറുള്ളത് തൻ്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതുപോലെതന്നെ മൃഗങ്ങളെ പ്രത്യേകിച്ച് എൻ്റെ ദേശത്ത് പശുക്കളാണ് കൂടുതലും ഒരു വരുമാന സ്രോതസ്സ് കൂടെ ആയി കണ്ടു കൊണ്ട് വളർത്തുന്നത് ഇപ്പോള് പശുക്കളായാലും പശുക്കളുടെ കാളക്കുട്ടികളായാലും അതിനെ വേണ്ട രീതിയില് പരിരക്ഷിക്കുകയും അത് അതിൽ നിന്ന് ഫലം മുഴുവൻ കിട്ടിക്കഴിയുമ്പോൾ അതിനെ കശാപ്പിനായി വളരെ ആദരവോടുകൂടി വിൽക്കുന്ന ഒരു സംവിധാനം എൻ്റെ ദേശത്ത് സ്വീകാര്യമായി ഇരിക്കുന്ന ഒരു വസ്തുതയാണ് പൊതുവേ പശുക്കളെ കൊന്ന് ഇറച്ചി ആ മാംസം ഉപയോഗിക്കുന്നത് മാനവികമായി എല്ലാവർക്കും യോജിക്കുവാൻ സാധിക്കുക ഇല്ലെങ്കിൽ കൂടി കേരളത്തിൻ്റെ എൻ്റെ ദേശത്തെ പ്രത്യേക പശ്ചാത്തലത്തിൽ ഈ പശുക്കളിൽ നിന്നായാലും കാള വിഭാഗത്തിൽ നിന്നായാലും ഏറെക്കുറേ വരുമാനം നിലച്ച ഘട്ടത്തിലെത്തുമ്പോൾ അതിനെ പരിപാലിക്കുകയെന്നു പറയുന്നത് സാമ്പത്തികമായിട്ട് ഏറെ പ്രതിസന്ധി ഉണ്ടാക്കുന്ന മേഖലകളാണ് അതുകൊണ്ട് ഏറെ ആദരവോടു കൂടി ഈ പശു പ്രായമായ പശുക്കളായാലും കാളകളായാലും അതിനെ വിൽക്കുകയും ആ വ വിൽക്കുമ്പോൾ ഒരു കർഷകൻ ഒരു പശുവിനെയോ കാളയെയോ വിൽക്കുകയാണെങ്കിൽ അത് വാങ്ങുന്നവൻ അത് മാംസത്തിനായി ഉപയോഗിക്കുകയും ചെയ്യുന്നു പക്ഷേ ഈ പ്രോ പരുവ ഈ പ്രക്രിയകളെല്ലാം ഏറെ ആദരവോടു കൂടിയാണ് നിർവഹിക്കാറുള്ളത് ഒരു പശുവിനെയോ ഒരു കാളക്കുട്ടിയെയോ വിൽക്കുന്ന സാഹചര്യത്തിൽ പോലും അതിനു വേണ്ട പരിരക്ഷ കൊടുക്കുന്നെങ്കിൽ കർഷകരും പൊതുസമൂഹവും ഏറെ ശ്രദ്ധ ചെലുത്താറുണ്ട് തൻറ്റേ ഭവനത്തിലും കൂടെയുള്ളവർക്ക് ആഹാരവും പരി ശ്രദ്ധയും കൊടുക്കുന്നത് പോലെതന്നെ ഈ മൃഗങ്ങൾക്കും പരിരക്ഷ കൊടുക്കുന്ന ഒരു സമൂഹമാണ് ഞങ്ങളുടെ ദേശത്ത് വസിക്കുന്നത് പക്ഷെ ഈ പശുക്കളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളിൽ വിറ്റു കിട്ടുന്നതിൻ്റെ പണവും ചെലവുമായി പൊരുത്തപ്പെടാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഈ പശു വളർത്തല് എന്നു പറയുന്ന മേഖല ഒരു ഗാർഹിക മേഖലയും ഭവനങ്ങളിൽ വീട്ടമ്മമാർക്ക് ഒരു ഏറെ ആനന്ദം നൽകുന്ന തൊഴിലാണെങ്കിൽ കൂടി ഇന്നിപ്പോൾ ജീവിത ചിലവ് ന് അനുസ്യൂതമായിട്ടുള്ള വരുമാനം ഈ പശു വളർത്തലിൽ നിന്ന് ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ ഈ പശു വളർത്തൽ ഏറെ നിരുത്സാഹപ്പെടുന്ന ഒരു സ്ഥിതി വിശേഷത്തിലൂടെ കടന്നുപോവുകയാണ് അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുഖകരമായൊരു കാര്യവുമാണ് ഗവൺമെൻറ്റ് ഈ മേഖലയില് ഏറെ ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു കാലഘട്ടത്തില് കൂടിയാണ് നാം കടന്നുപോകുന്നത് ഇന്ന് പശുവിനെ ആടുകളെയൊക്കെ വളർത്തുന്നതിനു പകരം കുടുംബങ്ങളിൽ കുട്ടികളുടെ ഇൻഫ്ളുവൻസിൽ

വസ്തുത ഏറെ ദുഖകരമായി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് ഓക്കെ താങ്ക്യു